ഹലോ ഞാൻ മരിയൻ ബാങ്കീന്ന് വിളിക്കുവാണെ കുറച്ച് ലോണ് നമ്മൾ ഓഫറ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം താങ്കളെന്തിലെങ്കിലും ഇൻട്രസ്റ്റഡ് ആണോ ലോൺസിൽ നമുക്കിവിടെ പല ടൈപ്പ് ലോണ് ഉണ്ട് ഇപ്പം നമുക്ക് കാർ ലോണ് ഉണ്ട് ഹൗസ് ലോണ് ഉണ്ട് ഇപ്പം എജുക്കേഷൻ ലോണ് ഉണ്ട് പിന്നെ എന്താ പിന്നെന്താ കൺസ്ട്രക്ഷൻ ലോണ് ഉണ്ട് ബിസ്നസ്സ് ലോണ് ഉണ്ട് അങ്ങനെ പല രീതീസിലുള്ള ലോണ് ഉണ്ട് അപ്പം താങ്കൾ എങ്ങനെത്തെ ലോണ് ആണ് ഉദ്ദേശിക്കുന്നത് ആണല്ലേ ഓക്കെ ഹൗസിങ്ങ് ലോണിന് നമുക്ക് പലതരം ഇതുണ്ടായിരുന്നു ചെറിയ വീടിന് വേറൊരു ലോണ് ആണ് വലിയ വീടിന് വേറൊരു ലോണാണ് ഇത്ര പൈസയ്ക്ക് താഴെ വരുന്ന വീടിന് വേറൊരു വേറെ വേറെ ഇതാണ് സ്കീംസ് ആണ് അപ്പം എങ്ങനെയായിരുന്നു ആണല്ലേ ഓക്കെ അങ്ങനാണെ നമുക്ക് ജവഹർ ലാൽ നെഹ്റു ലോണ് ഓഫേഡ് ആണ് അത് നിങ്ങളെന്തൊക്കെയാണ് ഒരു ലോണിൽ പ്രതീക്ഷിക്കുന്നത് അത് വെച്ചിട്ട് ഞാനൊരെണ്ണം നിങ്ങൾക്ക് മാച്ച് ചെയ്ത് തരാം ടു പേഴ്സൻറ്റ് ഇൻറ്ററസ്റ്റ് റെയ്റ്റേ ഉള്ളൂ ആനുവലീ നമുക്ക് പല ടൈപ്പ് ഓപ്ഷനുണ്ട് സിക്സ് മന്ത്സ് ഉണ്ട് എയ്റ്റ് മന്ത്സ് ഉണ്ട് ട്വൽവ് മന്ത്സ് ഉണ്ട് അല്ലെങ്കിൽ ടു ഇയേഴ്സ് ഇയേഴ്സ് കണക്കിലുണ്ട് ഇപ്പം നിങ്ങളുടെ താൽപ്പര്യ പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആ നിങ്ങളുടെ നിങ്ങളുടെ ആധാർ കാഡും പാസ്പോട്ടും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേണമായിരുന്നു ആ ഇത്ര മാസത്തിനകം തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും എന്നിട്ടത് താങ്കൾക്ക് തരുന്നതായിരിക്കും എന്നിട്ട് ഒരു സമയപരിധിക്ക് അപ്പുറം നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലീഗലി ആക്ഷൻസ് എടുക്കുന്നതായിരിക്കും അത് നമ്മൾ കോടതിയിൽ കൊടുക്കും കോടതിയൊരു വാറൻറ്റ് ഇഷ്യു ചെയ്യും എന്നിട്ട് ബാക്കി കോടതിയുടെ കയ്യിലാണ് കൺസ്യൂമർ കോർട്ടിൻ്റെ കയ്യിലാണ്

ആ എടുക്കാം എടുക്കാം ഇത് ഈ ലോണ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വീണ്ടും ലോണ് എടുക്കാം ലോണ് എടുക്കാം എത്ര എത്ര വേണമെങ്കിലും എടുക്കാൻ പറ്റത്തില്ല ഒരു രണ്ട് ലോണോ മറ്റോ എടുക്കാം ത്രീ മന്ത്സ് ഇൻറ്റർവെൽൽ കൂടുതൽ കൂടുതലായിട്ട് ഇത് നിങ്ങൾ നോക്കുന്നതിൽ വളരെ നല്ലൊരു ഓപ്ഷനായിരിക്കും കാരണം ഇതിന് ഇൻട്രസ്റ്റ് റേയ്റ്റ് വളരെ കുറവാണല്ലോ അതുപോലെത്തന്നെ ഇതിൻ്റെ മൂല്യം വളരെ വലുതാണ് ഇപ്പം താങ്കൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞൊരു പണിയാനാണെങ്കിൽ സാധനങ്ങളുടെ വില വല്ലാതെ വർധിക്കുമല്ലോ അപ്പം താങ്കൾക്കതൊരു ബുദ്ധിമുട്ടാകുമല്ലോ അപ്പം അന്നേരം അപ്പം അന്നേരം അപ്പം വന്ന് പണിയുന്ന പൈസയുണ്ടെങ്കിൽ ഇപ്പം വേണമെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് വേണെൽ വെക്കാം അപ്പം താങ്കളിപ്പഴേ ചെയ്യുന്നത് കൊണ്ട് വളരെ നല്ലതായിരിക്കും വ്യത്യസ്തമായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ വ്യത്യസ്തമാണ് നമ്മൾക്ക് നമ്മുടെ ബാങ്ക് വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഓഫറ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞതൊരു ഗവൺമെൻറ്റ് സ്കീമ് ആണ് ജവഹർലാൽ നെഹ്റു അല്ലെ ഒരു ബാങ്കിൻ്റെ പല സ്കീമുമുണ്ട് പക്ഷെ അതിന് ഇൻട്രെസ്റ്റ് കൂടുതലാ അല്ലാതെ കുറേ കുറേ ഓപ്ഷന്സ് ഉണ്ട് ബാങ്കിൻ്റെ സ്കീമെന്ന് പറയുമ്പം ബാങ്കിൻ്റെ ഇപ്പം ഇതുപോലെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റെ ക്യാഷിൻ്റെ ബേയ്സിസ്ല് അമൗണ്ടിൻ്റെ ബേയ്സിസ്ലാ ചെയ്യുന്നത് ഇപ്പം വലിയ വലിയ വീടിൻ്റെയാണെങ്കിൽ വലിയൊരു എമൗണ്ട് വരുമായിരിക്കും പക്ഷെ അതുപോലെത്തന്നെ മ് ട്വൻറ്റി ലാക്സ് ലോണ് വേണമെങ്കിൽ ഓക്കെയാണ് അത് നിങ്ങൾ ഒരൂ നിങ്ങളുടെ പാസ്പോട്ടും ആധാർ കാഡും പിന്നെ ആധാർ കാഡിൻ്റെ കോപ്പിയും അങ്ങനെത്തെ കുറച്ച് കാര്യങ്ങളും ആ ആ ലാൻഡിൻറ്റെ പ്രോപ്പർട്ടിയടെ രെജിസ്ട്രേഷൻ പേപ്പറും ഒക്കെ കൊണ്ട് ബാങ്കിൽ വന്ന് കഴിഞ്ഞാൽ നമ്മളത് ഡീല് ചെയ്യാം നമ്മൾ അത് ഡൈറെക്റ്റ് ഗവൺമെൻറ്റിന് കൊടുത്ത് എന്തെങ്കിലും ഒക്കെ ഗവൺമെൻറ്റ് അപ്പ്രൂവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഓഫറ് ചെയ്യാം നല്ലൊരു സ്കീം നമുക്ക് ഓഫറ് ചെയ്യാം ഈ താങ്കൾ ഏത് ബ്രാഞ്ചിലാ പോകുന്നതെങ്കിലും പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെപ്പോയിട്ട് അവിടത്തൊരൂ ആളെ സമീപിച്ചെന്നാൽ മതി അവർ ബാക്കി പറഞ്ഞോളും കുട്ടിക്കാനം ബ്രാഞ്ചിൽ നിന്നാണ് വിളിക്കുന്നത് എ ആണല്ലേ കുട്ടിക്കാനത്താണല്ലേ ഓക്കെ എങ്കിൽ താങ്കൾ സമയം പോലെ ഇങ്ങോട്ട് വരിക നമ്മൾ വേണ്ടത് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ ശരി ശരി ശരി